ഇത് മര്യാസ് ടാക്സി സർവീസല്ലെ ഇത് ഞാൻ കുമരകത്തൂന്നാന്നെ വിളിക്കുന്നതെ എനിക്ക് നാളെയൊരു ഞങ്ങള്ക്ക് ഒരു പത്തുപേർക്ക് പോ ആതിരപ്പള്ളിവരെ പോവാനായിരുന്നു അപ്പോഴൊരു അത് എങ്ങനെയാ ടാക്സി കാറാണോ കാ കാര് ഒരു നാലുപേർ പത്ത് പേരുണ്ട് അപ്പോള് നാലു പേർക്കും ആറുപേർക്കൂടി ഇരിക്കാവുന്ന വണ്ടിയാണെങ്കില് അതിന് അതാണോ നല്ലത് അല്ലെ പത്ത് പേർക്ക് ഒരുമിച്ച് പോവാനുള്ള ട്രാവലറോ അങ്ങനെ വല്ലതും അ കുറച്ചുകൂടെ സൗകര്യം നാലു പേർക്ക് ആവു രണ്ടായിട്ട് പോകുന്നതായിരിക്കും ഇന്നതായിട്ട് പോവുന്നെ അല്ലെങ്കിയാണെ കുട്ടികളും വലിയവരും പ്രായമുള്ളവരൊക്കെയുണ്ട് ഇതിനകത്ത് അപ്പോള് കുറച്ച് കുറച്ച് വഴിക്കൊക്കെ ഇച്ചിരി നിർത്തിയൊക്കെ പോണ്ടിവരുമായിരിക്കും പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടെ അപ്പോള് നല്ലൊരു ഡ്രൈവറെയും വേണം കുറച്ച് ക്ഷമയുള്ള ഡ്രൈവറെയക്കെ വേണം ഇടയ്ക്ക് നിർത്തിയൊക്കെ പോകണ്ടതുകൊണ്ട് അപ്പോള് രണ്ട് വണ്ടി ഒരു നാല് പേരുടെ ആറ് പേരുടെ വണ്ടി കാറായിരിക്കും സൗകര്യമെന്ന് തോന്നുന്നു അപ്പോള് നാളെ രാവിലെ ത്തേനുവേണ്ടിയാണെ നാളെ രാവിലെ പോ എട്ട് മണിക്ക് പോവാന് വേണ്ടിയാണ് ആ അപ്പോള് കുമരകത്ത് കുമരകത്ത് അട്ടിപ്പീടിയേലാണ് തേങ്ങാപ്പറമ്പിൽനിന്ന് ആ അപ്പോഴാ രണ്ട് വണ്ടി ആ രണ്ടും ബുക്കെയ്യുവാണെ